ആ ഞാന് ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഇവിടെ മീൻ വേണമെന്ന് പറഞ്ഞു എന്നതൊക്കെയാണ് വേണ്ടത് മത്തിക്ക് ഇരുന്നൂറു രൂപ അയല നൂറ്റമ്പത് രൂപ എന്ത് മാത്രം വേണം എല്ലാ ആഴ്ചയിലും ഉം ഉം ആ അളിനേ വിടുവാണെങ്കിൽ കൊടുത്ത് വിടാം ഉചിതവായിരിക്കാം അല്ലെങ്കിൽ കൊടുത്ത് വിടാം നല്ല മീനല്ലേ തരുന്നത് കാളാ ചൂരാ എല്ലാമുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് വില കുറച്ച് വാങ്ങിയ്ക്കാം ഉം ഉം

വെട്ടുമ്പം ആ വെട്ടുമ്പം അൽപ്പം കൂടി പൈസ കൂടും ഇല്ലെങ്കിൽ നിങ്ങള് തന്നെ ചെയ്യുവാണെങ്കില് വില ഇചിരിയും കൂടെ കുറയും ഉം വെട്ടിക്കൊടുത്ത് വിടാം ഉം ഉം ഉം ആ എന്നാൽ വെട്ടി കൊടുത്ത് വിടാം എന്തൊക്കെയാണ് വേണ്ടത് ഒര് കിലോ മത്തി ഒര് കിലോ അയലയും ഉം പിന്നെ വേറേ വെല്ലതും വേണോ ഉം ശരി എല്ലാ മീനും വില കുറവാണ് അത് കൊണ്ട് വാങ്ങിച്ചോ ചൂരക്ക് വില കുറവാണ് നൂറ് രൂപ ഇപ്പം ഒരൂ ഒര് മണിക്കൂറിനകം കൊണ്ടുവരാം ഉം ആ ഫ്രഷ് ആയിരിക്കാം ഓക്കെ നല്ല മീനാണ് കൊടുത്ത് വിടുന്നത് ആ ആ ആ

ഉം

ആ പൈസ കൊടുത്ത് വിടുന്ന ആളിന്റെ കയ്യിൽ കൊടുത്ത് വിട്ടാൽ മതി

ആ ഓക്കെ